ഇവിടെ കുട്ടിക്കാലത്തെ സംബന്ധിച്ച് പെമ്പുള്ളാർ പെണ്ണുങ്ങളല്ല ഇപ്പം വിദ്യാർത്ഥിനികൾ നേരിടുന്ന വിദ്യാഭ്യാസത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ എനോർത്ത് കഴിഞ്ഞാൽ അവർക്ക് പല പലർക്കും സാഹചര്യം വരാനുള്ള യാത്ര ബുദ്ധിമുട്ട് വളരെ അധികം ക്ലേഷകരമാണ് പലർക്കും ടിക്കറ്റിൻ്റെ കാര്യങ്ങൾക്കെ തന്നെയണെങ്കിലും അവർക്ക് ബസ് ഫെയർ തന്നെയാണെങ്കിൽ വലിയ അധികം ബുദ്ധിമുട്ടുണ്ട് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികൾ നേരിടുന്ന ഒരു വിദ്യാഭ്യാസത്തി നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയാനാണെങ്കിൽ അവർക്കും സമാധാനത്തോടെ അല്ലെങ്കിൽ ഒരു സ്വസ്ഥത ഒരു ഫ്രീഡം കിട്ടുന്നില്ല എന്നുള്ളതാണ് അതായത് അവർ ഭയങ്കരായ്ട്ട് ടോളറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവര് ഭയങ്കരായിട്ട് ഞെക്കിപിഴിഞൊരു പഠിപ്പിക്കുന്ന രീതിയിലോട്ട് അങ്ങനെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലോട്ടൊക്കെ മാറുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഭാവി തന്നെ അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതത്തിൽ തന്നെ അധികം അല്ലാതെയധികം ബാധിച്ചുകോണ്ടിരിക്കയാണ്